ഹലോ ഇത് ലാൻഡ്ലൈൻ ബിൽ പേയ്മെന്റ് ഡിപ്പാർട്ട്മെൻ്റ എൻ്റെ ലാൻഡ്ലൈൻ ബിൽ അടയ്ക്കൽ വിജയകരമാണെന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് കിട്ടിയിരുന്നു എൻ്റെ മൊബൈൽ ഫോണിൽ ആണ് ആ മെസ്സേജ് വന്നത് പക്ഷെ അത് ശരിയായ ശരിയായ തുകയാണോ ഞാനടച്ച തുക അത് ശരിയാണോ എന്നുള്ളതിൻ്റെ ഒര് മെസ്സേജ് കൂടി എനിക്ക് താങ്കൾ അയക്കേണ്ടത് ഞാനടച്ച തുക ഞാൻ എൻ്റെ ബിൽ പേയ്മെൻറ്റിൻ്റെ തുക അത് കറക്റ്റാണോ എന്നുള്ളതറിയാൻ വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ട് ആ ആഗ്രഹം നിങ്ങൾ നിറവേറ്റി തരണം എനിക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഈ ബില്ലിൻ്റെ തുക കൃത്യമാണോ എന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് എനിക്കത് നിങ്ങൾ ചെയ്ത് തരികയും ചെയ്യണം എൻ്റെ തുക കൃത്യമാണോ എപ്പം കിട്ടും ഇത് ശരിയായ തുക തന്നെയാണോ ഇനി എത്രയാണ് അടയ്ക്കണ്ടത് എങ്ങനെയാണീ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നിങ്ങളാ മെസ്സേജിലുഉൾപ്പെട്ത്തെണ്ടതാണ്